ഇപ്പോൾ വയനാട് ജില്ലയിൽ വർഷങ്ങളായിട്ട് നമുക്ക് മാറി വന്നോണ്ടിരിക്കുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കെട്ടിടങ്ങൾ തന്നെയാണ് പണ്ട് ഓല മേഞ്ഞിരുന്ന കെട്ടിടങ്ങളും ഷീറ്റിട്ട വീടുകളും ആണ് ഇപ്പം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓടിട്ട വീടുകൾ പിന്നെ വാർക്ക വീടുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആയപ്പത്തന്നെ ഏകദേശം വയനാട് ജില്ലയിൽ ഭൂരിഭാഗം നല്ല രീതിയിൽ വികസനം വന്നിട്ടുണ്ട് അപ്പം ഇപ്പന്ന് ആദ്യം ഒക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പം ഒരു നല്ല ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർടെ വീടുകളൊക്കെ നല്ല സെറ്റപായിട്ടുള്ള വീടുകളാണ് ഇപ്പൊഴേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ താഴ്ന്ന ജാതിക്കാർക്കും വാർക്ക വീടും ഓടിട്ട വീടുകളൊക്കെ വന്നോണ്ട് പിന്നെ അവർടെ വീട്ടിൽ ടൈല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു പണ്ട് എന്ന് പറഞ്ഞാൽ ബാത്ത് റൂം അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം നല്ല രീതിയിലുള്ള ബാത്ത് റൂം കാര്യങ്ങളൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് റൂമിൽ തന്നെ നമുക്ക് അറ്റാച്ഡ് ആയിട്ടുള്ള ബാത്ത് റൂം കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ നല്ല രീതിയില് വികസനം വന്നിട്ടുണ്ട് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ കന്നുകാലി വളർത്തലൊക്കെ കൂടീട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള പാൽ സംഭരണവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമ്മളെ വയനാട്ടീന്ന് തന്നെ വന്നിട്ടുണ്ട് അപ്പം ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇപ്പം എന്താ പറയാ എല്ലാ പൈസ കിട്ടാൻ തുടങ്ങി പല രീതിയിലുള്ള മത്സ്യസമ്പത്തും അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് വയനാട് ജില്ലയിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ